അതെ അതെ ഹൗസ് ഓണർ ആണ് പറഞ്ഞോ ആ മിഥുനേ പറ എന്നാ പറ്റി മിഥുനേ മിഥുനേ മിഥുനേ മിഥുനേ കേ ആ കറണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ് അല്ല മിഥുനേ കറണ്ട് കെ എസ് ഇ ബിയുടെ ഡിപ്പാർട്ട്മെൻറ് ആണ് മിഥുനേ മിഥുനേ ഇൻവെ ഇൻവെ ഇൻവേർട്ടർ ഒക്കെയുള്ള വീട് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതിനുമാത്രം എക്സ്പെൻസീവ് ആയിരിക്കും ഇത് എത്രയാണ് മന്ത്ലി വാടക വാങ്ങിക്കുന്നത് വെറും ഇരുപത്തയ്യായിരം രൂപ

ഒരു മാസ്റ്റർ ബെഡ്റൂം ഉൾപ്പെടെ ഇപ്പം അഞ്ച് ബെഡ്റൂം ഉള്ള മിഥുനേ ഒന്ന് കേൾക്ക് എനിക്കൊരു സമയം താ മിഥുനേ ഇപ്പം പ്രശ്നം എന്താണ് മിഥുൻ്റെ പ്രശ്നം എന്തുവാ മിഥു മിഥുനേ അവിടെ മോട്ടർ ഒക്കെ ക്ലിയർ അല്ലേ മിഥുനേ ആണോ ഞാൻ ആ രതീഷിനെ പറഞ്ഞുവിട്ടായിരുന്നല്ലോ

ഇനിയിപ്പോൾ എന്തുവാ ചെയ്യാൻ പറ്റുന്നത് മാസം വാടക കുറയ്ക്കുന്ന പ്രസ്ഥാനം ഒന്നുമില്ല കേട്ടോ വാടക കുറയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം വാടക നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ അറിയാം മിഥുനേ കഴിഞ്ഞ മാസത്തേത് എന്നാണ് തന്നത് മിഥുൻ അല്ല അല്ല കറക്റ്റ് കറക്റ്റ് ആയിട്ട് തന്നിട്ടൊന്നുമില്ല അന്ന് പതിനെണ്ണായിരമേ തന്നിട്ടുള്ളായിരുന്നു ആരുടെ കയ്യിലാണ് കൊടുത്തത് എനിക്ക് ഞാൻ ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചേ മിഥു മിഥുൻ ഒന്ന് അന്വേഷിച്ചു നോക്ക് ഇതിലും നല്ല വീട് അടുത്ത് എവിടെയെങ്കിലും കിട്ടാനുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്ക് എന്നിട്ട് വിളിക്ക് ആ ആ എന്നാൽ ശരി മിഥുനേ ശരി മിഥുനേ അന്വേഷിച്ചിട്ട് പറഞ്ഞാൽ മതി ഇപ്പോൾ ആൾ നിൽക്കുവാണ് ഇവിടെ പുതിയതായിട്ട് കയറാനായിട്ടൊക്കെ എന്നോട് എത്ര പേർ ചോദിക്കുന്നുണ്ടെന്ന് അറിയുമോ മിഥുനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഇത് വരെ അവർക്കൊന്നും കൊടുക്കാഞ്ഞത് ശരി മിഥുനേ ശരി ഓ ഒന്ന് ഒന്നുമില്ല മിഥുനേ മിഥുൻ എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചോ തള്ളി മറിച്ചെന്നോ തള്ളി വീണെന്നോ എന്തെങ്കിലും വിചാരിച്ചോ ആ ശരി ശരി ശരി ഓക്കെ